എന്റെ പ്രദേശത്തെ നെയ്ത്ത് തുന്നല് രിതികളെ കുറിച്ച് ആ അങ്ങനെ ഒക്കെ നമ്മള് കണ്ടിട്ടുണ്ട് ആദ്യമൊക്കെ അതായത് തുണി നെയ്യുന്നതും പിന്നെ കൂടുതലും ഖാദി വസ്ത്രങ്ങളുടെ അതൊക്കെയാണ് ഞാന് കൂടുതലും കണ്ടിട്ടുള്ളത് ഖാദി പിന്നെ കോട്ടന് വസ്ത്രങ്ങള് നെയ്യുന്നത് അങ്ങനത്തെ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഞാനിത് പഠിക്കാന് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പണ്ട് വസ്ത്രങ്ങള് നിര്മ്മിക്കുന്നത് കണ്ടു പഠിക്കാനും അങ്ങനെ ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ എനിക്കത് പിന്നെ തലയിൽ കയറിയില്ല അപ്പോഴത്തേക്കും എന്റെ കല്യാണം ആയി പിന്നെ അത് പകുതിക്ക് വെച്ച് നിര്ത്തി പിന്നെ കുടുംബമായി കുട്ടികളായി അങ്ങനത്തെ പരിപാടിക്കെ ആയപ്പോൾ പിന്നെ അതിനോടൊന്നും പിന്നെ ഇന്ട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഒക്കെ പോയി പിന്നെ എനിക്ക് കുടുതലും അതായത് ഖാദി ഡ്രസ്സുകളോട് ഭയങ്കര ഇഷ്ടം പിന്നെ കോട്ടന് ഡ്രസ്സ് അങ്ങനെ ഒക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് തുണി അതായത് കളര് പോവുല്ല എപ്പോഴും നല്ല വ്യത്തിയായിരിക്കും എപ്പോഴും പുതിയത് പോലെ ഉണ്ടാവും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പരമ്പരഗത വസ്ത്രങ്ങള് നിര്മ്മിക്കാന് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നെയ്ത് രിതികളെ കുറിച്ച് ഒക്കെ കുറെ ഒക്കെ അറിയാം കുറെ നമ്മള് ക്ലാസ്സിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാക്ടിക്കള് ചെയ്യാന് തുടങ്ങിയത് പക്ഷേ അത് കമ്പ്ലീറ്റ് ആക്കാന് പറ്റിയില്ല